ആമസോണിൽ നിന്ന് എനിക്കൊരു ഷർട്ട് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ വിളിക്കുന്നത് എനിക്ക് എൻ്റെ മകന് വേണ്ടിയാണ് ഷർട്ട് എടുക്കുന്നത് അവന് ലാർജ് ആണ് വേണ്ടത് ഒരു നീല കളറിലുള്ള ഷർട്ട് ആരിക്കണം അതില് ചെറിയ ചെറിയ ഡോട്ടുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും ചെറിയ ഡിസൈനുകള് ഉണ്ടെലും കുഴപ്പമില്ല എനിക്ക് അതിന് ഒരു ആയിരം രൂപ അയിൽ കൂടണ്ട ആ തരത്തിലുള്ള ഒരു ഷർട്ട് പിന്നെ എനിക്ക് വേണം അതിന് നല്ല നിറ നല്ല നീല നല്ല നിറമായിരിക്കണം എനിക്ക് അത്യാവശ്യമായി അത് വേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതെനിക്ക് എത്തിച്ചു തരണം എന്ന് ഞാൻ പറയുകയാണ്